എടാ എന്റെ ഒരു പാസ്പോര്ട്ട് മോഷണം പോയി അത് ഞാനിപ്പോള് എന്താണു ചെയ്യുക അതിന് വേണ്ടിയിട്ട് ഞാന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എടാ അത് ഞാനവിടെ ദുബായില് നിന്നപ്പോള് നമ്മുടെ ഒരു ഷേയ്ക്ക് ഞങ്ങളുടെ കയ്യില് നിന്ന് അത് വാങ്ങിച്ചോണ്ട് പോയി അപ്പോള് അങ്ങനെ നടന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായില്ല അതെന്തിനാണാദ്യം അയാള് അത് കൊണ്ടുപോയതെന്നെനിക്ക് മനസിലായില്ല പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോള് ആള് എന്നെ നന്നായിട്ട് അടിമുടിയൊന്ന് നോക്കി എന്നിട്ട് പറഞ്ഞു നിങ്ങള്ക്കത് പുതുക്കേണ്ടതാണ് അത് നിങ്ങള് നാട്ടിലേക്ക് മടങ്ങാനായി നിങ്ങള്ക്കത് പുതുക്കണം എന്ന് പറഞ്ഞു അപ്പോള് ഞങ്ങള് വിചാരിച്ചു ആ എന്നാല് അത് കൊണ്ടുപോയിക്കോളൂ എന്ന് വിചാരിച്ച് ഞങ്ങള് ഞങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട് അത് വളരേ അധികം വേദനിപ്പിക്കുന്നൊരു സംഭവമുണ്ടായി അത് ആള് കൊണ്ടുപോയി അതാളുടെ കയ്യില് വച്ചേക്കുകയാണ് ഞങ്ങള്ക്ക് അയാളുടെ ലോക്കറില് നിന്ന് എടുക്കാനത് പറ്റുന്നില്ല അപ്പോള് എടാ ശരിക്കും ഒരു യാത്രയില് ഞങ്ങള്ക്ക് ശരിക്കും ഒരു വിഷമം നിറഞ്ഞൊരു സംഭവമായിരുന്നത് എടാ നാട്ടിലേയ്ക്ക് മടങ്ങുന്നതിന് മുന്നെ മോഷ്ടിച്ച പാസ്പോര്ട്ടിനെ കുറിച്ച് ഞാനെങ്ങനെയാടാ എന്റെ അമ്മയുടെയടുത്തു പറയുക അത് നമ്മള് അത് പുതുക്കേണ്ടതുണ്ട് അതും ചെയ്യാനുമുണ്ട് അപ്പോള് അതിനൊക്കെ വേണ്ടിയിട്ട് ഞാനത് ഇതിപ്പോള് ഈയൊരു യാത്രയ്ക്ക് ശേഷം അത് ചെയ്യാം എന്നുള്ള രീതി എന്നൊരു ഇതിലായിരുന്നു അത് കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ ഒരവസ്ഥ വന്നല്ലോ എന്നാലോചിക്കുമ്പോള് വളരെയധികം വിഷമമുണ്ട് ഇനി ഞാന് അത് വേഗത്തിലാക്കാന് വേണ്ടി ഞനെന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഇതിനി നീയിപ്പോള് നാട്ടിലുള്ളതല്ലേ അപ്പോള് നീയവിടുന്ന് അവരുടെ ആള്ക്കാരുടെ സഹായം തേടി എനിക്ക് ഞാനതെങ്ങനെ വേഗം നടത്തി കൊണ്ടു പോവണം അല്ലെങ്കില് ഇത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യണ്ടത് എന്നൊന്ന് ഒരു പിന്തുണ തരുമോടാ